പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് പതിനാറേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്